ഇരുപത്തി രണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി എട്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി രണ്ട്